ഇപ്പോഴത്തെ ആൾക്കാർ ഇതിൽ വളരെയധികം കുറവാണ് കാരണം ഇപ്പോഴത്തെ യുവതലമുറകളെല്ലാം പ്ലസ് ടു കഴിഞ്ഞ ഉടൻ പുറത്തേക്ക് വിദേശ രാജ്യങ്ങളുടെ ജോലി അന്വേഷിച്ചു പോകുകയും അവിടെ നിന്ന് അവർ സെറ്റിലായി അവരുടെ വിദേശ സമ്പാദ്യങ്ങളെല്ലാം അവിടെ നേടിയെടുത്തവർ അവിടെ സെറ്റിലാകുകയും ഒട്ടേറെ അവിടെ നിന്ന് കാ പൈസ സമ്പാദിച്ച് ഇങ്ങോട്ട് നാടുകളിലേക്കു വരികയുമാണ് കൂടുതലായി ചെയ്യുന്നത് ഇപ്പോഴത്തെ യുവതലമുറകൾ എല്ലാം തന്നെ കൂടുതലായും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കൂടുതൽ ജനങ്ങൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരുപാട് ആളുകൾ നൃത്തം ചെയ്യുകയും ഒന്നുമില്ല കാരണം പണ്ടത്തെ തലമുറ എന്നു പറയുന്നത് നൃത്തം എന്നതും കൊണ്ടൊരു കലയെയും അതുവഴി അത് അവർ അതൊരു ജീവിത മാർഗ്ഗമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോഴത്തെ തലമുറകൾ എന്നു പറഞ്ഞാൽ പഠന മേഖലകളിലേക്ക് കൂടുതൽ പുരോഗമിക്കുകയും പ്ലസ് ടു കഴിഞ്ഞ ഉടൻ വിദേശ രാജ്യങ്ങളിലേക്കു പോകുകയും അവിടെ ഒരു ജോലി നേടി പൈസ സമ്പാദിക്കുകയുമാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഇപ്പോൾ വളരെയധികം ഇല്ല എന്നു വേണേ തന്നെ നമുക്ക് പറയാം കാരണം വളരെയധികം ഇപ്പോൾ നൃത്തം ശൈലി ചെയ്യിപ്പിക്കുകയും പഠനങ്ങൾ കൂടുതൽ കാഴ്ച വെക്കുന്ന വളരെയധികം കുറവാണ് സമൂഹത്തിലെ യുവാക്കൾ നൃത്ത രീതികൾ പഠിക്കാൻ വലിയ താൽപര്യം പണ്ട് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അതിന് യാതൊരുവിധ താല്പര്യമില്ല വളരെ കുറവാണ് എന്നാൽ ഇല്ല എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത് കൂടുതലും അവ അവർ പുറം പുറം നാടുകളിലേക്ക് വിദേശങ്ങളിൽ പോകുകയും പിന്നെ അവർ മറ്റ് കോഴ്സുകളെടുത്തു പഠിക്കാൻ പോകുകയും അവർ അതുവഴി ജോലികൾ കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത് എന്നാൽ പണ്ടത്തെ ആളുകൾ കൂടുതലായും നൃത്തം പഠിക്കുകയും അതു വഴി ജീവിതമാർഗ്ഗവും കലയെയും ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു കൂടുതൽ യുവ തലമുറകൾ എന്നു വേണേൽ പറയാം ഇപ്പോഴത്തെ ന്യൂ പുതിയ തലമുറകൾ എന്നു പറയുന്നത് കൂടുതലായും മറ്റു പല ജോലികൾ ചെയ്തും പുറം നാട്ടുകളിലേക്കു പോകുകയും രക്ഷപ്പെടുകയും ബൈക്ക് വണ്ടി എടുക്കുകയും മറ്റു ജോലികൾ ചെയ്തു നടക്കുകയും എല്ലാമാണ് ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് ഒട്ടേറെ വ്യത്യസ്തമാണ് പണ്ടത്തെ ആളുകൾ നൃത്തം ചെയ്യുകയും അതൊരു കലയായി രൂപീകരിച്ച് കൊണ്ടു നടക്കുകയും അതു വഴി കുടുംബം നോക്കുകയും പണം സമ്പാദിക്കുകയുമാണ് അവർ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനു വേണ്ടി നൃത്തം പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല മെച്ചപ്പെട്ട പഠനങ്ങളെയും നയിക്കുകയും ചെയ്യുന്നില്ല കാരണം ഇപ്പോഴത്തെ തലമുറകൾ ഒന്നും ഇതിനായി സമയം കൊടുക്കുകയോ സമയം അവർക്ക് ലഭിക്കുകയോ ചെയ്യുന്നില്ല കാരണം ഇതിനോട് ഒരു താൽപര്യം ഈ കല നൃത്തം എന്നതിനോടൊരു താല്പര്യം ഇല്ല എന്നു വേണേൽ അതിൽ നിന്ന് അർത്ഥമാക്കാം വളരെ വളരെ കുറവാണ് ആൾക്കാർ നൃത്തം ചെയ്യുന്നതും തന്നെ പണ്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒട്ടേറെ ബെറ്റർ എന്നാണ് ഇതിൽ നിന്നു പറയാൻ സാധിക്കുന്നതു കാരണം പണ്ട് ഇപ്പോഴത്തെ ആളുകൾ വളരെയധികം കുറവും ഇതു വഴി ജോലി സമ്പാദിക്കുകയും മറ്റുമാണ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനം എന്നു പറഞ്ഞു പോകുകയും അവിടെ പഠിക്കുകയും ജോലി സെറ്റാകുകയും എന്നാൽ പൊതുവെ അവിടെ ആളുകൾ സെറ്റിലാകുകയും പണം സമ്പാദിച്ച് ഇവിടെ വന്ന് മറ്റും ബിസിനസ്സുകളിലേക്കോ കുടുംബം നോക്കുകയും മറ്റുമാണ് ആളുകൾ ചെയ്യുന്നത് ഒരു കല എന്ന രീതിയിൽ നൃത്തം അവർ ഇത് എന്നു പറഞ്ഞാൽ ടെലിവിഷനിലൂടെ വരുമ്പോൾ കാണുക എന്നല്ലാണ്ട് അതിലൂടെ ഒരു താൽപര്യം കാണിക്കുകയോ അതു ചെയ്തു ജീവിക്കുകയോ അതൊരു കലയാണ് അതിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും പണ്ടുള്ള ആൾക്കാരേക്കാളും ഇപ്പോൾ അതു വളരെയധികം കുറവാണ് ഇപ്പം കല കാണുന്നവരും കല ചെയ്യുന്നതും ജീവിതം കുറയുന്നവരും എന്നു തന്നെയാണ് ഇതിൽ നിന്നു പറയാൻ സാധിക്കുന്നത് കലയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പണ്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് അതവർ കല എന്ന നൃത്തത്തിലൂടെ അവർ അത് അവരുടെ ജീവിതമാർഗ്ഗമാക്കി മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇപ്പോളാണെങ്കിൽ അവർക്കതൊരു മാറ്റം ഇല്ല എന്നു വേണേൽ തന്നെ പറയാം നൃത്തം എന്നതൊരു കലയും അവരുടെയൊരു ജീവിതമാർഗ്ഗത്തെയുമാണ് ഇതിൽ നിന്നു സൂചിപ്പിക്കുന്നത് എന്നു വേണം നമുക്കതിൽ നിന്നു അറിയാം എന്നാൽ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളായാൽ പോലും പ്ലസ് ടു കഴിഞ്ഞ ഉടൻ തന്നെ ഒന്നുകിൽ മറ്റുള്ള കോഴ്സുകളെടുക്കുകയും അല്ലേ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ മറ്റു കാര്യങ്ങൾ പഠിച്ച് അതിൽ നിന്ന് പുറത്തേക്കു പോകുകയും അവിടെ നിന്ന് കാശ് സമ്പാദിക്കുകയും ചെയ്തിട്ടാണവർ ശീലിച്ചിട്ടുള്ളത് കാരണം നൃത്തമെന്നൊരു കല ഉണ്ടെന്ന് അവർക്കറിയാം എന്നാൽ അവർ ഇതിനോട് കൂടുതൽ നീതി പുലർത്തുകയും ഇതിനോട് താൽപര്യം കാണിക്കുകയും ചെയ്യുന്നില്ല കാരണം കലയായിട്ട് അവർ കാണുന്നുണ്ടെങ്കിലും ഇന്ന് അവർക്കതിനോടൊരു ഇഷ്ടം കാണും എന്നാലത് അതിനോടൊരു താൽപര്യം അവർ പുലർത്തുകയും മറ്റൊന്നും അവർ ചെയ്യുന്നില്ല എന്നു തന്നെയാണ് സത്യം ഇപ്പോൾ കൂടുതലായും ചിന്തിക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾ ചിന്തിക്കുന്ന എങ്ങനെയെങ്കിലും പുറത്തു പോകുക സെറ്റിലാകുക പണം സമ്പാദിക്കുക കുടുംബം നോക്കുക എന്നുള്ള രീതിയാണ് എന്നാൽ പണ്ടുള്ള ആൾക്കാർ ചെയ്തു കൊണ്ടിരുന്നത് പണ്ടുള്ള ആൾക്കാർ ചെയ്തു കൊണ്ടിരുന്നത് എന്നു പറഞ്ഞാൽ കൂടുതലായും അവർ ഈ കലയെ സ്നേഹിക്കുകയും കഷ്ടപ്പെട്ട് നൃത്തം പഠിക്കുകയും ഇതൊരു കലാരൂപമാക്കി മാറ്റിയെടുക്കുകയും ഈ കല ചെയ്തു കിട്ടുന്ന മിച്ചം തുച്ഛമായ തുകയിൽ നിന്ന് കുടുംബം നോക്കുകയും അതൊരു അവർക്കതൊരു ആദായപ്രകാരമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക രീതി എന്നു വേണേ തന്നെ ഇതിലൂടെ നമുക്ക് പറയാൻ സാധിക്കും കാരണം അത് പണ്ടുള്ളവർ അതൊരു കലയും അവരുടെ ഒരന്നമാകുമായി ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് കുടുംബം മാറ്റുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതു വഴി മ ഒറ്റ മാറ്റങ്ങൾ സംഭവിക്കുകയുമാണിതിൽ ചെയ്യുന്നത് കൂടുതലായും അവ അവരുടെ ഉന്നമനത്തിനു വേണ്ടിയും ജോലിക്കു വേണ്ടിയും കൂടുതൽ സമ്പാദിക്കുകയും ഇപ്പോഴത്തെ പിള്ളേർ കലയെ ഒട്ടും ചിന്തിക്കുന്നില്ല എന്നു തന്നെയാണ് ഇതിൻ്റെ സത്യം എന്നതു കാരണം അവർ എങ്ങനെയെങ്കിലും പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുകയും കലയോടു താൽപര്യം ഉണ്ട് എന്നാൽ അവർക്ക് അതിനോടൊരു യോജിപ്പില്ല എന്നു വേണേൽ തന്നെ പറയാം പണ്ടത്തെ ആളുകൾക്കാണേ അതൊരു മാർഗ്ഗമായിട്ട് ജീവിത മാർഗ്ഗം ജീവിത ശൈലി എന്നു വേണേൽ ഇതിലൂടെ പറയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ സത്യം എന്നു വേണേൽ തന്നെ നമുക്ക് ഇതിലൂടെ പറയാനായിട്ട് സാധിക്കുകയും ചെയ്യാം